ഞാൻ വൺ പ്ലസ് ഫോണാണ് യൂസ് ചെയ്യുന്നത് നല്ല ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫോണതുപോലെ ഹീറ്റാവില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുണ്ട് ഗെയിമൊക്കെ കളിക്കുമ്പോഴാണെങ്കിൽ തന്നെ സ്പീഡും കാര്യങ്ങളും ഒക്കെയുണ്ട് ഹാങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേമറയൊക്കെ അടിപൊളിയാണ് പന്ത്രണ്ട് ജി ബിയാണ് റാം ഉള്ളത് ഇരുന്നൂറ്റിയമ്പത്താറ് സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെയുണ്ട് അതുപോലെതന്നെ ബ്രൗസറാണെങ്കിൽ സ്പീഡും കാര്യങ്ങളൊക്കെയുണ്ട് നല്ല സ്മൂത്ത് ഫോണ് ആണ് ഓവറോൾ നല്ല ഫോണാണ് സൗണ്ട് സിസ്റ്റം ആണെങ്കിലും കൊള്ളാം വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും നല്ലതാണ്